മലയാള ഭാഷ വിദ്യാലയ സമ്പ്രദായത്തിൽ വളരെ വലിയ പങ്കുതന്നെയാണ് വഹിക്കുന്നത് കാരണം

കുട്ടിക്കൾക്ക് എല്ലാവർക്കും വിദ്യാലയത്തിൽ വരുന്നതിന് വരുന്നതുകൊണ്ടുതന്നെ വളരെ മനോഹരമായ അവർ മലയാള ഭാഷ സംസാരിക്കുകയും മലയാളം വായിക്കുകയും മലയാളം എഴുതുകയും ഒക്കെ ആ കുട്ടികൾക്ക് പഠിക്കാനായി സാഹി സാധിച്ചു താൻ ജനിക്കുമ്പോൾ തന്നെ മലയാളം തന്നെയാണ് പറയുന്നത് കാരണം കേരളത്തിലെ മാതൃഭാഷയെന്നു പറയുന്നത് മലയാളം തന്നെയാണ് അതുകൊണ്ടു തന്നെ മലയാളത്തെ കുട്ടികൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നുണ്ട് മലയാളഭാഷയ്ക്ക് വലിയൊരു പ്രാധാന്യം തന്നെയാണ് ഈ ലോകത്ത് ഇപ്പോൾ ഉള്ളത് കാരണം സാഹിത്യകാരന്മാരും കഥയെഴുതും പിന്നെ കവിത അങ്ങനെയെല്ലാം ചെയ്യുന്നവരും മലയാളം വളരെ മനോഹരമായിട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടികൾക്കെല്ലാർക്കും പ്രചോദനമാണ് കാരണം മലയാള ഭാഷ വലിയ പങ്കുതന്നെ വഹിക്കുന്നതെന്ന് കാണിച്ചുകൊടുക്കുകയാണ് മലയാളഭാഷയെന്നുള്ള ആ ഒരു